എന്റെ ചേച്ചീ എന്റെ ഈ മൊബൈല്ന്റെ റീചാര്ജ് ഈ മൊബൈല്ന്റെ സിമ്മ് ഒന്ന് മാറ്റിയാൽ കൊള്ളാമെന്ന് ആഗ്രഹിക്കുകയാന്നേ ആ എന്തൊരു ചാര്ജ്ജ് ഒരു മാസം അറുന്നൂറ്റി അറുപത്തഞ്ച് രൂപ അടച്ചിട്ട് നമ്മൾ ഈ വിളിക്കുക നമ്മൾ ഇത്രയും വല്ലതും വിളിക്കുന്നുണ്ടോ നമ്മൾ ഇങ്ങനെ ഫോൺ ഒന്നും വിളിക്കുന്നില്ലല്ലോ നമ്മൾ ആകെപ്പാടെ എന്താ അത്യാവശ്യം ഫോണ് വിളിക്കണം പിന്നെ കുറച്ച് സമയം ഒരു വീഡിയോ കാണണം അതിന് ഈ അറുന്നൂറ്റി അറുപത്തഞ്ചു രൂപ ഒരു മാസം ചെയ്യുക എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അത് വളരെ കഷ്ടം അല്ലേ ചേച്ചി ഏത് പ്ലാനാ ഉപയോഗിക്കുന്നത് ബീ എസ് എൻ എല്ലോ അതോ വീ ഐ യോ ഇതിൽ ഏതാ ഏറ്റവും ലാഭകരമായിട്ടുള്ളത് ഏത് ഉപയോഗിച്ചാൽ ആയിരിക്കും നമുക്ക് ചേച്ചി ആ വീ ഐ കുഴപ്പം ഇല്ല അല്ലേ ആ ഞാൻ ഈ റേഞ്ച് നോക്കി സ്ഥലത്ത് ഏറ്റവും കൂടുതൽ റേഞ്ച് കിട്ടുന്നതേ ജിയോയ്ടെ ആണെന്നാ പറഞ്ഞത് അപ്പം അത് നോക്കിയിട്ടാണ് ഞാൻ എടുത്തത് എടുത്ത് കഴിഞ്ഞപ്പഴാ മനസിലായെ ഇതിന് ചാര്ജ് കൂടുതലാണെന്ന് ബീ എസ് എൻ എൽ ന് നമുക്ക് ഇവിടെ ചാര്ജ് കിട്ടുമോ കുറവല്ലേ റേയ്ഞ്ച് കിട്ടുമോ എന്ന് എനിക്ക് ഒരു സംശയം ഉണ്ട് നമ്മൾ പൈസ മുടക്കുകയാണെങ്കിൽ അതിനുള്ള പ്രയോജനം കിട്ടേണ്ടേ അപ്പം എന്താ ചെയ്യേണ്ടത് ഇത് ഒരു ദിവസം ഇത്ര ജീ ബി എനിക്ക് ആവശ്യം ഇത്രയും ജീ ബീ ടെ ഒന്നും ആവശ്യം ഇല്ലന്നേ എന്തിന് നമ്മൾ എന്നാ ചെയ്യുന്ന് പിള്ളേർക്ക് വല്ല പഠനാവശ്യം ഉണ്ടെങ്കില് അത് വേണ്ടിയിട്ട് അല്ലേ ചെയ്യത്തുള്ളൂ അപ്പാൾ അത്രയും എനിക്ക് ആവശ്യമില്ല അപ്പം പിന്നെ എന്തിനാണ് തല്ക്കാലം ഒന്ന് മാറ്റിയെടുത്ത് നോക്കാം എന്നിട്ട് നമുക്ക് റേയ്ഞ്ച് കിട്ടുമോ അല്ലെങ്കിൽ ആവശ്യമായിട്ടുള്ള നമുക്കിത് മതി എങ്കിൽ അത് മതിയല്ലോ അല്ലേ നമുക്കൊന്ന് അടുത്തുള്ള കടയിലോട്ട് ഒന്ന് ചെല്ലട്ടെ ഒന്ന് മാറ്റിയെടുക്കാനായിട്ട് ശ്രമിക്കാം